ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അവധിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എവിടെയും ട്രാവൽ ചെയ്യുക കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് പർവ്വതങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്നതാണ് അതേപോലെ പുരാതനമായ കാര്യങ്ങളും അതുപോലെ എന്റെ ബന്ധുക്കളും കാര്യങ്ങളും അവരെ റിലേറ്റീവ്സിന്റെ വീടുകളിൽ പോവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുകയും അവിടുത്തെ കൾച്ചറ് കാര്യങ്ങളൊക്കെ അറിയുകയും അവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അതുപോലെതന്നെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഭയങ്കരമായി വ്യത്യസ്തമായ രീതികളിലായിരിക്കും അവരുടെ അവിടുത്തെ ഓരോ സ്ട്രക്ച്ചറും കാര്യങ്ങളും കൾച്ചറാണെങ്കിലും എല്ലാം ഓരോന്നും ഓരോ രീതിയിലായിരിക്കും പിന്നെ അവിടുത്തെ ഫുഡുകള് കാര്യങ്ങളും എല്ലാം തന്നെ ഡിപെൻഡബിളായിരിക്കും അതെല്ലാം എനിക്ക് കണ്ടും കേട്ടും കഴിച്ചു ഒക്കെ അറിയാൻ ഭയങ്കരമായി ഇഷ്ടവും കാര്യങ്ങളൊക്കെയുള്ള ഒരാളാണ് അതുപോലെതന്നെ ഇപ്പം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഫറെൻറ് സ്ഥലങ്ങളും ഇതും കാര്യങ്ങളും പിന്നെ ഒപ്പമുള്ള ആൾക്കാരെ വെച്ച് എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അതുപോലെ ഇപ്പോൾ ബന്ധുക്കളുടെയും റിലേറ്റീവ്സ് വീട്ടിൽ പോവാണെന്നുണ്ടെങ്കിൽ അവരുടെ കസിൻസിന്റെയും ഒക്കെ ഒപ്പമുള്ള മൊമൻറ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുപോലെതന്നെ ഇപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കൂടുമ്പോഴാണെന്നുണ്ടെങ്കിൽ കടലിൽ പോയി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ റിലേറ്റീവ്സിന്റെ ഒപ്പം പുറത്തുപോകുമ്പോൾ അമ്പലങ്ങൾ കാര്യങ്ങൾ അങ്ങനെ മതപരമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്